തീർച്ചയായും ഫലപ്രദമായൊരു പരിപാടിയാണ് സൈക്കിളോ പിന്നെ ലാപ്ടോപ്പൊക്കെ കൊടുക്കുന്നത് കാരണം എന്നാന്നറിയുമോ പല സ്ഥലത്തും ഒത്തിരി ദൂരം പെൺകുട്ടികളെ അല്ല ഇപ്പോഴും പഠിപ്പിക്കാൻ വിടാത്തൊരു കൾച്ചർ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ സ്ഥലങ്ങളിൽ ഇല്ല പക്ഷെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മുൻപന്തിയിലേക്ക് സ്ത്രീകളും വരണം എല്ലാവരും അതായത് പുരുഷനും സ്ത്രീയും തുല്യരാണെന്ന് പറയുന്നത് പോലെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ വരുന്ന നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ എത്രയോ പേര് വല്യ നിലയിൽ എത്താനുള്ള കഴിവുള്ളവരായിരിക്കുമെന്ന് അറിയുമോ അപ്പോൾ അവര് പിന്നോക്കപ്പെട്ടു പോകുന്നത് ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ നമ്മളവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഓരോ വ്യക്തിയുടേയും അവരുടെ സ്വയം അവരുടെ വ്യക്തിത്വം പിന്നെ നമ്മൾ രൂപപ്പെടുത്താൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വിദ്യാഭ്യാസം വല്ലാത്തൊരു പങ്കുവഹിക്കുന്നുണ്ട് അപ്പം അവരെ അവർക്കൊരു യാത്ര വിഷമം ഉള്ള കാര്യമാണ് ഇത്രയും ദൂരം നടന്ന് വരാൻ ആണ് എങ്കിൽ അവർക്കൊരു സൈക്കിൾ കൊടുക്കുന്ന കൊണ്ട് വളരെ ഉപകാരം ഉള്ളൊരു കാര്യമാണ് പിന്നെ ലാപ്ടോപ്പുകൾ ഇപ്പം എല്ലാം ഹൈടെക്കാണ് അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ഈ പിന്നെ നമ്മള് പോയിട്ട് ഗുരുശിഷ്യ ബന്ധം അങ്ങനെയൊക്കെയുണ്ട് നമ്മൾ ഗുരുക്കളുടെ വീട്ടിൽ പോയി നിന്ന് അത് വർഷങ്ങൾക്ക് മുൻപെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരിതാണത് അത് കഴിഞ്ഞു വന്നു പിന്നെ ഉള്ളത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഓരോ കാലഘട്ടം കൂടുന്നതിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞങ്ങളെന്ന് വച്ചാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള വിദ്യാഭ്യാസമാണോ ഇപ്പോഴത്തെ മക്കൾക്ക് ചെറുപ്പത്തിൽ കിട്ടുന്നത് അല്ല അപ്പം കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസവും മാറുന്നു ഇപ്പോൾ ഒരു കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാം മനസിലാകും ഭയങ്കര ഹൈടെക്കാണ് അവര് കുറച്ച് ഫാസ്റ്റാണ് നമുക്ക് നമ്മളെക്കാളും അവര് ഭയങ്കര ഫാസ്റ്റാണ് അപ്പോൾ ഇപ്പോഴത്തെ യുഗം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ലാപ്ടോപ്പിലും കംപ്യൂട്ടറ് ഫോണ് അതിലൊക്കെയാണ് അതിൽ നോക്കിയാൽ തന്നെ മക്കൾ ക്ക് പഠിക്കാൻ ഉള്ളതെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്ത് അവരുടെ പിന്നെ അവരെ നമ്മള് മുമ്പിലോട്ട് കൊണ്ട് വരുന്നത് നല്ല ഭാഗം നമ്മുടെ ഈ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാരാഷ്ട്ര പിന്നെ ബീഹാർ ആന്ധ്ര അവിടെയൊക്കെ ഉള്ളവരാണ് ഈ പെൺകുട്ടികൾ കുറെ പേര് പിൻപന്തിയിലോട്ട് പോകുന്നത് അവരുടെ രീതി എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കുക കെട്ടിച്ച് വിടുക മക്കളെ ഇതാക്കുക അങ്ങനൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല അവരൊക്കെ മുൻപന്തിയിൽ കൊണ്ട് വരണമെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പിന്നെ സർക്കാർ ഓരോന്നിങ്ങനെ കൊടുക്കുവാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർ വിദ്യാഭ്യാസത്തെ നല്ല രീതിയിൽ പിന്നെ ഇതാക്കാൻ പറ്റും അതുമല്ല പല സ്ഥലത്തും ഫലപ്രദമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഇതൊന്നും വേണ്ട അവർ എങ്ങനെയായാലും പഠിക്കാൻ പോവും പക്ഷേ ബാക്കി ജില്ലകളിൽ പല സ്ഥലത്തും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഫലപ്രദമായിട്ടുണ്ട് തമിഴ്നാട്ടില് ഫലപ്രദമായിട്ടുണ്ട് ഈ സംഭവം അവർക്ക് സൈക്കിളും ഇതൊക്കെ കൊടുത്ത് മക്കളെ കൊണ്ടു വരുന്നത് ഫലപ്രദമായ ഒരു കാര്യമാണ്